പ്രധാനപ്പെട്ട താല്പര്യം തോന്നിയിട്ടുള്ള ഒരു വാർത്ത എന്നു പറയുന്നത് ഒരു തൊഴിലിൽമ തൊഴിലില്ലായ്മ വേതനം ത്തെ കുറിച്ചുള്ളൊരു വാർത്തയായിരുന്നു കാരണം ഇതൊരു പ്രത്തെ പ്രധാന സംഭവം തന്നെയാണ് കാരണം ഈ തൊഴിലില്ലായ്മത്ത്വം ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അവർക്കു വേണ്ടി ഒരു തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തുന്നത് വളരെ ഒരു നല്ലൊരു തീരുമാനമാണ്